ഹലോ ഈ പി സ്റ്റോറ അല്ലേ ആ ഒരു കല്യാണാവശ്യത്തിന് കുറച്ച് സദ്യക്കുള്ള സാധനങ്ങൾ വേണ്ടിയിരുന്നു അരിവേണം അരിവേണം പിന്നെ അഞ്ഞൂറ് പേർക്ക് ഉള്ളത് ആ പിന്നെ പച്ചക്കറി തക്കാളി വലിയുള്ളി ഇഞ്ചി പച്ചമുളക് പരിപ്പ് പയർ വെള്ള മട്ട അരി എടുത്തോളൂ നല്ല നോക്കി എടുത്തോളൂ കേട്ടോ പിന്നെ ആ പായസം രണ്ടു കൂട്ട് പായസം ഉണ്ട് അടപ്പായസം സേമിയപ്പായസം അതു രണ്ടിൻ്റെ സാധനങ്ങൾ വേണം പാലാണ് ഉപയോഗിക്കുന്നത് സേമിയം അട പിന്നെ ആ അതെ അതെ സദ്യക്കുള്ള എല്ലാ ഇതും എടുക്കും എടുക്കുവൊണ്ടേ ആ ആ നമുക്ക് ഏകദേശം എത്രയാകും റേറ്റ്

ഓക്കെ ഓക്കെ നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന കടയല്ലേ അപ്പോൾ ഡിസ്കൗണ്ട് തന്നു കൂടെ

ഓക്കെ

ആ ഓക്കെ ഞാൻ എത്താം ആ റെഡിയാക്കി വയ്ക്കണേ കല്യാണമായതുകൊണ്ട് സമയം കിട്ടില്ല അപ്പോൾ പെട്ടെന്നു റെഡിയാക്ക് അത് ഓക്കെ ശരി എന്നാൽ താങ്ക് യു